ഹലോ അതേ ഞാനൊരു കംപ്ലയിൻറ് പറയാൻ വിളിച്ചതാണ് ശരി ആണെന്നേ എന്തോ ചെയ്യാനാണ് ഇവിടെ വെള്ളം ഇല്ല ഇടയ്ക്ക് ഭയങ്കര കറണ്ട് പോക്ക് ഇടയ്ക്കൊന്നും വെള്ളം ഇല്ല ആണെന്നേ എന്തുവാണെന്ന് അറിയില്ല വെള്ളം വരുന്നില്ല പിന്നെ മിക്ക മിക്കപ്പോഴും കറണ്ടും ഇല്ല ആ അതൊന്ന് ഒന്ന് ഒന്ന് പരിഗണിച്ച് തരണേ

ആ ആണോ ആയിരിക്കും ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് വരുമേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി മിന്നി അങ്ങനെയാണ് അതും അല്ല ഈ മഴ ഒക്കെ പിടിച്ചേ നമുക്ക് ഇപ്പം കറണ്ട് ഇല്ലാതെ പിള്ളേർ ഒക്കെ ഉള്ളതുകൊണ്ടേ അപ്പം അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതും അല്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളവും അതുപോലെ വെള്ളം നമുക്ക് ഏറ്റവും അത്യാവശ്യം അല്ലേ വെളളം കൊഴ കുഴൽ കിണർ ആ ആ ആ ആ ആ

ആ എന്ത് ആ ആ ഓ ഇല്ലില്ല അവരൊന്നും ചെയ്യുന്നും ഒന്നുവില്ല പക്ഷേ ഇടയ്ക്ക് വെള്ളമില്ല വെള്ളം പിന്നെ കറണ്ട് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് മോട്ടർ അടിക്കാൻ പറ്റുള്ളൂ ഏ അതല്ലെങ്കിൽ പിന്നെ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഉണ്ട് ഉണ്ട് അങ്ങനെ ഉണ്ട് നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് ആ ഇല്ല ഇല്ല ഇല്ല ഇല്ല ആ ഇല്ല ഇല്ല കുട്ടികളൊന്നും വരേണ്ട പന്നൽ ആക്കുവൊന്നുവില്ല ഒന്നുമില്ല ആ അത് അതിനൊന്നും വറി ആവേണ്ട ഞങ്ങൾ അത് ശ്രദ്ധിച്ചോളാം കുഴപ്പം ഒന്നുമില്ല ആ ആ ഓക്കെ നേരത്തേ തരാം തരാം ആ അതിന് മുന്നേ ഇത് ഇതൊന്ന് പരിഗണിച്ച് തരണേ എന്നാ എന്നുവെച്ചാൽ അത് അത് വല്ല ഇപ്പം ഇപ്പം ഇനി അങ്ങോട്ട് മുന്നോട്ട് മഴയൊക്കെ ആയിരിക്കും എന്നാ എന്നുവെച്ചാൽ രാത്രിയേ പിള്ളേരെക്കൊണ്ട് കറണ്ട് ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതൊന്ന് ഇനി എനിക്ക് തോന്നുന്നത് ഈ മരത്തിൻ്റെ ഇത് വന്ന് ഇങ്ങനെ ചില്ല ഇങ്ങനെ വന്നേ ഇത് ചെയ്യുന്നതാണ് ആണ് ആ ആണ് ആണ് ആ ആ ആ ആ ആ നോക്കിക്കണേ ഓക്കെ ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സാ ഇങ്ങനെ ഒരു ഉണ്ടല്ലോ ഈ സൗണ്ട് പോലെ കറണ്ട് കമ്പിയും ചെയ്യും കമ്പി കമ്പി ഈ കമ്പും കൂടി ഇങ്ങനെ ഉരയുമ്പോൾ ഉള്ള ഒരിതില്ലേ ആ അങ്ങനെ വരുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ശരി ശരി ശരി ഓക്കെ